ആ അതേലോ പറയൂ മാഡം ആ അതെ അതെ ആ മാഡം എവിടുന്നാണ് വിളിക്കുന്നത് കണ്ണൂര് ആ ഓക്കേ ഓക്കേ നിങ്ങള് വന്ന് എടുക്കാനാണോ അതോ ഇനി ഞങ്ങള് ഹോം അവിട കൊണ്ട തരണോ ആ ഹോം ഡെലിവറി നമുക്ക് അവൈലബിളാണ് ആ അപ്പം നമ്മളിപ്പോൾ ഇത് ഇറക്കുന്നതെന്ന് പറഞ്ഞിട്ട്ണ്ടെ വയനാട്ന്നാണ് നമ്മളിത് ഇറക്കുന്നത് അപ്പോ അതിൻറ്റേതായ ഡെലിവറി ചാർജ് ഉണ്ടാവും നിങ്ങക്ക് എങ്ങനെയാ സൗകര്യന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ ഓക്കേ ആക്കാം ക്വാളിറ്റീസ്ന്ന് പറഞ്ഞിട്ട്ണ്ടെങ്കീ മാഡം നമ്മള് വീട്ടില് തന്നെ ആണ് ഇത് ഉണ്ടാക്കുന്നത് വേറെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല നോർമല് നമ്മള് വീട്ടില് ഇണ്ടാക്കുന്നെയാണ് ക്വാളിറ്റീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കീ ഇപ്പം ഫൈവ് സ്റ്റാർ ആണ് ഇതിന് ഇള്ളത് അതായത് ആൾക്കാര് തലേല് വെക്കാൻ വേണ്ടി ഒക്ക മേടിക്കുന്നത് ഫുഡ്ഡ് ഐറ്റംസ് ഇണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഒക്ക മേടിക്കുന്നണ്ട് ഇതുവരെ ഒരു മോശം അഭിപ്രായം നമുക്ക് കിട്ടീട്ട് ഇല്ല എല്ലാരും നല്ല ഗുഡ് അഭിപ്രായങ്ങളാണ് പറയാറ് വേറെ ഇപ്പ കുഴപ്പം ഒന്നും ഇല്ല മാഡം നല്ല ക്വാളിറ്റി ഉള്ള സാധനാണ് ആ അതെ അതെ മാഡം എല്ലാ ഹോം മെയ്ഡെന്നെയാണ്

മുടി കൊഴിച്ചിലൊന്നും ഇല്ല മാഡം ഇത് വരെ യൂസ് ചെയ്തവരിൽ നിന്ന് അങ്ങനെ ഒരു ബാഡ് കമൻറ്റ് നമുക്ക് കിട്ടീട്ടില്ലാ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയാറ് ആ ഫുഡ്ഡ് ഐറ്റംസ് ഇണ്ടാക്കുന്നേനും ആൾക്കാര് മേടിക്കാറ് ഒക്കെ ഉണ്ട് അങ്ങനത്ത കുഴപ്പമൊന്നുമില്ല മാഡം നല്ലതാണ് അതായത് നമ്മട ഹോം മേയ്ഡിൽ മെയ്ടാണ് അപ്പം അത് ഒരു പ്രശ്നം ഇല്ല എല്ലാർക്കും ധൈര്യായിട്ട് കൊടുക്കാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പം ഒരു ലിറ്ററിന് നമ്മള് ഒര് തൊണ്ണൂറ്റെട്ട് രൂപ വരെ ഉണ്ടാവും പിന്നെ ടെൻ ലിറ്റർ ആയിട്ട് മാം എടുക്കുമ്പം അതിൻറ്റേതായ ഡിസ്കൗണ്ട് നമുക്ക് തരാൻ കഴിയും നിങ്ങള് എത്രയിനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ലിറ്ററിനൊക്കെ അവിടെ ഒക്കെ എത്രയാണ് ആ അപ്പ അതിൻറ്റേതായ ക്വാളിറ്റി കൊറവ് ഉണ്ടാവും അവര്ട ഇതിൽ ഒക്ക ഇത് ഇപ്പ ഹോം മെയ്ഡ് ആണല്ലൊ നമുക്ക് ഇത് വിശ്വസിച്ച് മേടിക്കാനും കഴിയും പരിശുദ്ധമാണ് വേറെ പ്രോബ്ലെംസൊന്നും ഇല്ല മാഡം ആ ഓക്കേ ഓക്കേ അങ്ങനത്ത പ്രോബ്ലൊന്നുല്ല മാഡം എല്ലാ അടിപൊളിയാണ് നിങ്ങക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നോക്കീട്ട് അതിൻറ്റേതായ ക്വാളിറ്റി വേണമെങ്കിൽ നോക്കി അറിയാം ആ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാ വയനാട് കൽപ്പറ്റാന്ന് പറയും മാഡം ഞങ്ങള് വേണെങ്കീ ലൊ നിങ്ങള് വരികാണെങ്കിൽ ഞങ്ങള് ലൊക്കേഷൻ ലൈവ് ആയിട്ട് ഇട്ട് തരാം ഇപ്പം കണ്ണൂര് വരുകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഡം ആ പെട്രോളിൻ്റെ ക്യാഷും ജസ്റ്റ് ഇത് അവിടെ വരെ കൊണ്ട് തരുന്ന ആളുടെ ഒര് ഇതും വേണല്ലോ അവർക്ക് ഒരു സാലറി കൊടുക്കണല്ലൊ അപ്പം അതിൻറ്റേതായ ഒരു രീതിയില് ഇപ്പൊൾ കണ്ണൂര് വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കീ ആക്ച്വലി ഒര് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ഡെലിവറി ചാർജ് വരുവായിരിക്കും കാരണം വായനാടിന്ന് കണ്ണൂര് വരെ വരണല്ലൊ അപ്പം നിങ്ങൾക്ക് ഇവിടെ വരെ വരണമെങ്കിൽ അതിന്റേതായ ചിലവ് ഉണ്ടാവുമല്ലോ അപ്പം എന്താന്ന് വെച്ചാൽ നോക്കീട്ട് വിളിച്ചാൽ മതി കണ്ണൂരില് ഞങ്ങളുടെ ഷോറൂമ് ഇത് വരെ വന്നിട്ടില്ലാ അവിടെ ഇപ്പം എന്തായാലും ഉണ്ടാവില്ല മാഡം ആ നിങ്ങള് വയനാട് വരുന്നുണ്ടെങ്കിൽ എന്തേലും ആവശ്യത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഇവിടെ വന്ന് നോക്കാം കൽപ്പറ്റ മുട്ടിൽ ഒര് പ്ലേസ് ഉണ്ട് നിങ്ങള് വരുമ്പം കോഴിക്കോട് ചുരം കേറീട്ട് കൽപ്പറ്റ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വരണം നിങ്ങൾക്ക്

അപ്പം മാഡം നോക്കീട്ട് വിളിക്കാ വിളിച്ചാൽ മതി ആ അപ്പം എന്താന്ന് വെച്ചാൽ മാഡം വെരുന്നത് ആണെങ്കിലും അല്ലെങ്കിലും മാഡം എങ്ങനാ വേണ്ടേന്ന് വെച്ചാൽ നിങ്ങള് വിളിച്ചാൽ നമ്മ അപ്പ സെറ്റ് ആക്കിത്തരാം ഓക്കേ ഓക്കേ ആ ഇതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി മാഡം അത് ആ ഇത് കമ്പനി നമ്പറാ രജിസ്റ്റർ നമ്പറ് വേണമെങ്കിൽ ഇതിലേക്ക് വാട്ട്സ്ആപ്പ് ഡീറ്റെയിൽസ് ഞാൻ ഇട്ട് തരാം ഓക്കേ മാഡം എന്നാൽ ശരി ആ മതി മതി ഇതില് വിളിച്ചാലും മതി മാഡം അയച്ചാൽ മതി ഉം എന്നാൽ ശരി മാഡം